ഞാൻ ആലപ്പുഴേന്നായിരുന്നു ഞാൻ നിങ്ങളുടെ ക്യാബ് സ്ഥിരം വിളിച്ചോണ്ടിരുന്നതായിരുന്നു അന്നേരം ഇപ്പം എന്താന്ന് ചോദിച്ചാൽ എനിക്കും എൻ്റെ ഫാമിലിക്കും കൂടെ തമിഴ് നാട്ടിലേക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടീട്ടാണ് അന്നേരം രണ്ട് ദിവസത്തതിന് വേണ്ടി ആ ക്യാബൊന്ന് ബുക്ക് ചെയ്യാനാണ് ഞാൻ വിളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പം നിങ്ങളുടെ ഇത് റേയ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു ഇപ്രാവശ്യം അത് കുറച്ചും കൂടി ഒക്കെ കുറച്ച് തരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ട്രിപ്പിനല്ലേത്തന്നെ പൈസയാകും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഞാൻ വേറെ ഒരു ക്യാബ് വിളിക്കുന്നില്ല കാരണം നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണല്ലോ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പം അതിന് എന്തെങ്ങിലുവൊക്കെ കുറച്ചും കൂടെയൊക്കെ കിഴിവ് പ്രതീക്ഷിക്കുന്നു എനിക്ക് അല്ലേലും വിശ്വാസം നിങ്ങളെ തന്നെയാണ് മറ്റുള്ളവരിലും അപ്പം അതിന് എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വേറെ കാരണം എന്തെങ്കിലും ആണോന്ന് ചോദിച്ചാൽ അതല്ല ഇപ്പം എൻ്റെ ഫാമിലി ആയിട്ട് പോകാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സേയ്ഫായിട്ടും അല്ലേലും സ്ഥിരം വിളിക്കുന്നത് ആണല്ലോന്നോർത്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം കുറച്ചും കൂടെയൊക്കെ റേറ്റ് കുറച്ച് എനിക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തരണം